നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ട്

നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരാനുളള സിറ്റുവേഷനിലാണോ അങ്ങോട്ട് എങ്ങനെയാണ് വണ്ടികളൊക്കെ വരുമോ ഓക്കെ ഇപ്പോൾ നിങ്ങളെവിടെയാണുള്ളത് ഓ ഓ നല്ല നല്ല ഭക്ഷണങ്ങള് കൂടുതല് കഴിക്കുക റസ്റ്റ് എടുക്കുക എവിടെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് യാതൊരു കാരണവശാലും പോവാതിരിക്കുക പോകരുത് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങൾ വീട്ടീൽ തന്നെ നിന്ന് നിങ്ങളുടെ ഇത് നിലനിർത്തുക മറ്റ് കുഴപ്പങ്ങളുണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകളായിട്ട് എന്തെങ്കിലും ക്ഷീണമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ കോവിഡ് പ്രശ്നങ്ങൾ മൊത്തത്തില് വ്യാപിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങളോട് വീട്ടിൽ തന്നെ ഇരുന്ന് റസ്റ്റ് എടുക്കാൻ പറയുന്നു ഫുഡിൻ്റെ കാര്യത്തില് വല്ല കുഴപ്പം ഓക്കെ ഓക്കെ ഇത് ഇപ്പോൾ ഇവിടേയും കൂടുതലായത് കൊണ്ട് അതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്

നന്നായി ഇവിടെ എത്തിക്കാനായിട്ട് ആളുകളില്ല അതാണ് ഇപ്പോൾ കോവിഡ് കാരണം എല്ലാവരും അവിടുത്തെ ഹോസ്പിറ്റലിലേക്കങ്ങനെ ആൾക്കാരെ എൻട്രി ചെയ്യുന്നില്ല ഇവിടെ ഉള്ളവരെ തന്നെ ഇതാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പുറത്ത് നിന്ന് വേറെ ആരേയും ഇതാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരേയും ഒരുവിധം എല്ലാവരേയും വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഒരു ഇതില് നിർത്തുന്നത് നിർത്തിയിരിക്കുന്നത് ഓക്കെ വേറെന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ കോൺടാക്റ്റ ചെയ്യാം ഓക്കെ അതെ ശരി അയച്ചു തരാം